സ്ത്രീകള് ഒരുപാട് വെല്ലുവിളികള് നേരിടുന്നുണ്ട് അവരുടെ യാത്രാസൗകര്യങ്ങളിലായാലും മറ്റുള്ളവരോട് ഉള്ള അവരുടെ ബീഹേവ്യറിലായാലും അവർ ഒരുപാട് വെല്ലുവിളികള് ഈ ഈ വരുന്ന കാലത്ത് നേരിടുന്നത് ഉണ്ട് ഈ സമൂഹത്തില് ഇന്ത്യന് സമൂഹത്തില് സ്ത്രീകള് പഴയ കാലത്തില് നിന്ന് എന്നതിനേക്കാളുപരി പുതിയ കാലത്ത് ഒരുപാട് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് അവർ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് ഒരു പ്രത്യേക നിയമനിര്മാണ സ്ഥലങ്ങളിലേക്ക് എല്ലാം സ്ത്രീകള് മുന്നേറില് മുന്നേറിയിട്ടുണ്ട് അവരുടെ ജോലികളിലായാലും പണ്ട് പഠിച്ചിരുന്ന ജോലികളെല്ലാം ഇന്ന് സ്ത്രീകള് ചെയ്ത് തുടങ്ങുന്നുണ്ട് തെങ്ങ് കയറാൻ പണ്ട് സ്ത്രീകള് ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് തെങ്ങ് കയറുവാനും ഡ്രൈവ് ചെയ്യുവാനും മറ്റ് എന്ത് കാര്യങ്ങള്ക്കായാലും സ്ത്രീകളെ മാറ്റി നിര്ത്തുവാനാവില്ല അവര് എല്ലാ ഇടങ്ങളിലും ഉണ്ട് അവരുടെ പങ്കും കുറച്ച് കളയാനുള്ളതല്ല നല്ല കഴിവുള്ള സ്ത്രീകളുണ്ട് ആത്മാര്ത്ഥമായി ജോലി എടുക്കുന്ന മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്ത്രീകള് ഇന്ന് ഈ സമൂഹത്തിലുണ്ട് പണ്ട് മാറ് മറയ്ക്കാന് പോലും അവകാശമില്ലായിരുന്ന സ്ത്രീകള് എന്നതിലുപരി ഇന്ന് അവരുടേതായ വസ്ത്രധാരണങ്ങളിലേക്ക് സ്വതന്ത്രമായി ജീവിത ശൈലിയിലേക്ക് മാറുവാനായിട്ട് അവര്ക്ക് സാധിച്ചിട്ടുണ്ട് അത് കൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകളുടെ അവസ്ഥ കൃത്യമായി മുന്നേറ്റത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിലാണ് അവര് സ്വയം പര്യാപ്തരായിട്ടുണ്ട് സ്വന്തം കാലിൽ നില്ക്കുവാന് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം മറ്റ് മേഖലകളില് ഉള്ള അവരുടെ കടന്നുകയറ്റങ്ങള് എല്ലാം തന്നെ ഇതിന് സ്വീകാര്യമായ ഒരു രീതിയാണ്